ആ ഇന്നിപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം ഈയൊരു കാലാവസ്ഥ മാറ്റമാണ് മഴക്കെടുതി മഴക്കെടുതിയെന്ന് പറഞ്ഞാല് എല്ലാ ജീവജാലങ്ങളെയും നശിപ്പിക്കാൻ ശേഷിയാണതിന് വെള്ളപ്പൊക്കം ഉരുൾപ്പൊട്ടൽ അങ്ങനെ മഴക്കെടുതികൾ ഒരുപാട് കഴിഞ്ഞ വർഷം നമ്മള് കേട്ടിട്ടുണ്ടാകും ചൂരൽമല ദുരന്തത്തിൽ ഒരുപാട് പേരാണ് ജീവന് നഷ്ടമായത് എത്രയെന്നറിയാത്ത എണ്ണമില്ലാത്തത്രയും ആളുകളും ജീവജാലങ്ങളും വീടുകളും ഒരായുസ്സിൻ്റെ കഷ്ടപ്പാട് മൊത്തം വെള്ളത്തിലങ്ങലിഞ്ഞുപോയി അതിപ്പോള് നമ്മുടെ കേരളത്തിലല്ലാതെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെയൊക്കെ തന്നെയാണ് അവസ്ഥ വീട് നഷ്ടപ്പെടുന്നു എല്ലാവർക്കും അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്നു അപ്പോള് അതിനുവേണ്ടി സർക്കാർ വളരെ മുൻകരുതലുകളും എടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള ക്രിട്ടിക്കൽ സോണിൽ നിന്നെല്ലാം എല്ലാവരെയും മാറ്റുന്നു ജനവാസ മേഖലയാണെങ്കിൽ എല്ലാവരെയും സേയിഫായ സ്ഥലത്തേക്ക് മാറ്റുന്നു ഈ വെള്ളം പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് വെള്ളം പൊങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കില് അവരെ അവിടെനിന്ന് രക്ഷപ്പെടുത്തുന്നു പലതും ചെയ്യുന്നുണ്ട് മുന്നറിയിപ്പ് അലാറങ്ങള് നൽകുന്നുണ്ട് അതിന് മുന്നേ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മാറാനുള്ള മുന്നറിയിപ്പൊക്കെ നൽകുന്നുണ്ട് അങ്ങനെ നമ്മുടെ ജനങ്ങൾക്കായിട്ട് പലതും ചെയ്യുന്നുണ്ട് സർക്കാർ അതുപോലെ തന്നെ ഈ അടുത്ത് നടന്നയൊരു വെല്ലുവിളിയായിരുന്നു നമുക്ക് കൊച്ചിയിൽ നിന്നും കൊച്ചി തുറമുഖത്ത് നിന്നും പുറപ്പെട്ട ഷിപ്പ് ത്രീ സി എ എസ് എൽസ എന്ന ഷിപ്പ് അറബിക്കടലിൽ ചെരിഞ്ഞത് ഒരുപാട് കെമിക്കൽസ് അടങ്ങിയ എണ്ണയാണ് കടലിൽ ചെരിഞ്ഞത് എണ്ണയുടെ കണ്ടെയ്നറുകളാണ് കടലിൽ ചെരിഞ്ഞിട്ടുള്ളത് അതിന് നമ്മളെന്ന് പറഞ്ഞാല് വർഷങ്ങളോളം നമ്മൾ അതിന് വില കൊടുക്കേണ്ടിവരുമെന്നാണ് അധികൃതര് പറയുന്നത് കേരളത്തിലെ പല ജില്ലകളിലായിട്ട് അതടിയാൻ സാധ്യതയുണ്ട് അതിലൊന്ന് രണ്ടായി തിരിച്ചിരിക്കുകയാണ് ഈ എണ്ണയെത്തന്നെ ഒന്ന് പെട്രോൾ പോലെ പെട്ടെന്ന് ആവിയായിത്തീരുന്ന എണ്ണയും പിന്നെ ക്രൂഡ് ഓയിൽ പോലെ വളരെ കട്ടിയുള്ളത് ഈ ക്രൂഡ് ഓയിൽ പോലെ കട്ടിയുള്ളതാണ് ഏറ്റവും നമുക്ക് ഹാനികരമായിട്ടുള്ളത് അത് പരിസ്ഥിതിക്ക് ഏറ്റവും ഭീഷണിയായിട്ട് നിലനിൽക്കുകയാണ് ജീവജാലങ്ങളെല്ലാം നശിക്കും നമ്മുടെ മെയിൻ മത്സ്യബന്ധനം നിന്നുപോകും മത്സ്യങ്ങളെല്ലാം നശിച്ചുപോകും ഇത് വർഷങ്ങളോളം ഇതിൻ്റെ ഒരു എഫക്റ്റ് നമുക്കുണ്ടാകുമെന്നാണ് പറയുന്നത് സൂര്യപ്രകാശത്തിന് കടലിലേക്കിറങ്ങിച്ചെലാൻ പറ്റാത്ത വിധം ഈ എണ്ണ കടലിന് മുഖത്ത് പാളിയായിട്ട് നിൽക്കും അതെല്ലാം മത്സ്യങ്ങളുടെ ഏറ്റവും ഉൾത്തട്ടിലുള്ള മത്സ്യങ്ങളെ വരെ എഫക്റ്റ് ചെയ്യും അവയെല്ലാം നശിച്ചുപോകും ഈ മത്സ്യം നമുക്കും നമുക്കിപ്പം അത് ഭക്ഷിക്കാനും കഴിയില്ല കാരണം അതിലത്രയും അധികം കെമിക്കൽസുള്ളതുകൊണ്ട് ക്യാൻസറിന് വരെ സാധ്യതയുള്ള കെമിക്കൽസ് ആണ് അതില് അടങ്ങിയിരിക്കുന്നത് അപ്പോള് മത്സ്യത്തിലൂടെ ആ വിഷാംശം നമ്മുടെയുള്ളില് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്യാൻസർ വരെയുണ്ടാക്കും അങ്ങനെ പല ഇതിനും എന്തെങ്കിലും സർക്കാർ എന്തെങ്കിലും പരിഹാരമെല്ലാം കണ്ടിട്ടുണ്ടാകുമെന്നാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് അപ്പോള് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ എപ്പോഴും കൂടെയുണ്ട് എന്തും എന്തൊരു പ്രതിസന്ധിയിലും അവരുടെ കൂടെ നിൽക്കും ഇപ്പോള് ഈ മുന്നേ നമ്മള് ഇന്ത്യ ഏറ്റവും അമുഖീകരിച്ചു കൊണ്ടിരുന്നൊരു പ്രശ്നമായിരുന്നു ഇന്ത്യ പാക്ക് യുദ്ധം നമ്മുടെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സേഫാക്കിക്കൊണ്ടാണ് അവര് യുദ്ധം നടത്തിയത് ഓപ്പറേഷൻ സിന്ദൂര് എന്നൊരു സംവിധാനത്തിലൂടെ നമ്മുടെ സൈന്യം അതിശക്തമായി നേരിട്ടു നമ്മുടെ ജനങ്ങളെ സേഫാക്കി അതങ്ങനെ അവസാനിച്ചു അപ്പോള് അതൊക്കെയാണ് നമ്മളിപ്പം ഇന്ത്യയില് മെയിനായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത്